ഞാൻ തുടക്കത്തിൽ സ്റ്റാർട്ടിങിൽ ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് ഫേസൊക്കെ വരയ്ക്കാൻ നേരം ഷേഡിങും കാര്യങ്ങളും അത്രയ്ക്ക് പെർഫെക്റ്റൊന്നും അല്ലായിരുന്നു അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ചോദിച്ചറിഞ്ഞ് നമ്മുടെ നാഗുൽ നമ്മുടെ ഒര് ഗ്രൂപ്പിലിങ്ങനെ പരിചയപ്പെട്ട ഒരു ആർട്ട് ഗ്രൂപ്പ് ആ ഗ്രൂപ്പിൽ പരിചയപ്പെട്ട ഒരു ചേട്ടനൊക്കെയായിട്ടാണ് അപ്പോൾ ആ ചേട്ടനെനിക്ക് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട് ഷേഡിങ് ടെക്നിക്സും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാന്നും പ്രോസ് പ്രോസ് ഹാച്ചിങും അങ്ങനെ കോണ്ടൂർലെ കോണ്ടൂറൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട് നമുക്ക് യൂസ് ചെയ്യുന്ന ഷേഡ് ഷേഡിങിന് യൂസ് ചെയ്യുന്ന പലതരം ബ്രഷുകളുണ്ട് പിന്നെ കുറെ സ്റ്റാംസുണ്ട് അങ്ങനൊക്കെ പറഞ്ഞ് നമുക്ക് സ്വന്തമായിട്ട് സ്റ്റംസൊക്കെ ഉണ്ടാക്കാം അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചേട്ടനെനിക്ക് പറഞ്ഞ് തന്നിട്ടുണ്ട് പിന്നെ പുള്ളി യൂസ് ചെയ്യുന്ന കുറെ പെൻസിൽസും ഞാൻ ഞാൻ നേരത്തെ അങ്ങനെ നോർമലായിട്ടുള്ള എച്ച് ബി പെൻസിൽസൊക്കെയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ആ ചേട്ടനോട് കിച്ചുവെന്നാണ് ചേട്ടൻ്റെ പേര് ആ ചേട്ടനോട് ചോദിച്ചപ്പോഴാണ് ചേട്ടനാണ് ഇങ്ങനെ ഒരു ഇങ്ങനാണ് ഒര് പെൻസിലുണ്ട് സ്റ്റെഡലറെന്ന് പറഞ്ഞ പെൻസിലുണ്ട് അത് വാങ്ങി വ വരക്കുവാണെങ്കില് നല്ല ഒര് പെർഫെക്ഷൻ കിട്ടുവെന്ന് പറഞ്ഞു അത്പോലെ തന്നെ ഒരു ഒരു ഐവറി ഷീറ്റ് ഉണ്ടെന്ന് പറഞ്ഞു ഒരു എ ത്രി സൈസിലെ പേപ്പറാണ് അതൊക്കെ ചേട്ടനൊക്കെ പറഞ്ഞിട്ടാണ് ഞാനത് പേപ്പറ് വക്ക് വാങ്ങിയത് അപ്പം കംപേർഡ് ടു എന്ന് പറഞ്ഞ ഞാൻ നേരത്തെ വ യൂസ് ചെയ്ത പേപ്പറും ആ പെൻസിലും വെച്ച് നോക്കുവാണെങ്കിൽ ഞാനിപ്പം ചേട്ടൻ പറഞ്ഞത് അനുസരിച്ച് മേടിച്ച ആ പെൻസിലും അ പേപ്പറ് യൂസ് ചെയ്ത് വരയ്ക്കുമ്പം നമുക്ക് നല്ലൊര് സ്മൂത്ത് ഫിനിഷ് നമുക്ക് കിട്ടും അതൊക്കെ ആ പെൻസില് വെച്ച് നമ്മള് വരയ്ക്കുമ്പം തന്നെ ഷേഡ് ചെയ്യാനൊക്കെ ഭയങ്കര ഈസിയാണ് പിന്നേ ഓൺലൈനായിട്ട് ഞാന് അങ്ങനെ ആപ്പുകള് യൂസ് ചെയ്തിട്ടുണ്ടോന്ന് ചോദിച്ചാൽ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ടൈമില് ഡ്രോ ഗ്രിഡ് വരച്ചിട്ടാണ് നമ്മള് ഫേസ് പോർട്രൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അതിന് നമ്മള് ഞാനൊര് ആപ്പിനെ ആപ്പ് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ഡ്രോയിങ്ങ് ഗ്രിഡെന്നാണ് ആ ആപ്പിൻ്റെ പേര് അതില് നമുക്ക് എങ്ങനെയാണോ നമ്മള് ഡ്രോയിങ് ഗ്രിഡിനനുസരിച്ച് ആ ഗ്രിഡ് പേപ്പറിലും അത്പോലെതന്നെ ആ ആപ്പില് നമ്മള് ഒരു പിക്ക് വെച്ച് ചെയ്തെടുക്കും അങ്ങനെ നോക്കിയാണ് നമ്മളാദ്യമേ വരച്ചുകൊണ്ടിരുന്നത് അതൊര് ബിഗിനേഴ്സിന് നമ്മള് ഫേസ് പോർട്രൈറ്റൊക്കെ വരയ്ക്കാൻ വേണ്ടി ബിഗിനേഴ്സിന് ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ള ഒരാപ്പാണ് ആ ഡ്രോയിങ് ഗ്രിഡെന്ന് പറഞ്ഞിട്ടുള്ളത് എനിക്കത് പയ് നല്ലപ്പോലെ യൂസ് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ യൂട്യൂബിലും കാര്യങ്ങളിലും ഒക്കെ നമ്മള് സർച്ച് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഗ്രിഡ് മെത്തേഡ് ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു പ്രൊഫഷനലായിട്ട് കിട്ടുവെന്നും അങ്ങനെ തന്നെ ഒരുപാട് പേര് റെക്കമെൻറ്റ് ചെയ്തിട്ടുണ്ട്